എൻ്റെ കാര് കംപ്ലൈൻറ്റ് ആയത് കാരണമാണ് നിങ്ങളെയും നിങ്ങളുടെ ക്യാബിനെയും എനിക്ക് സമീപിക്കേണ്ടി വന്നത് അപ്പോൾ പോകുന്ന വഴി ഞാന് ഇപ്പോൾ തന്നെ ലേറ്റ് ആണ് എപ്പോൾ എത്തും നല്ല ട്രാഫിക്ക് കാണുമോ അപ്പോൾ ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ തന്നെ നല്ല ട്രാഫിക്ക് ഉള്ള റോഡിലൂടെയാണ് താങ്കൾ പൊയ്ക്കൊണ്ടിരിക്കുന്നെന്നാണ് കൊടുത്തേക്കുന്നത് ഞാന് ഇപ്പോൾ തന്നെ ലേറ്റാണ് എനിക്കൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എത്തണം എൻ്റെ ഓഫീസില് അപ്പോള് ഇത് ഇതേതെങ്കിലും നല്ല എളുപ്പമുള്ള ഷോട്ട് കട്ട് പിടിക്കാൻ സാധിക്കുമോ